ഞാനെൻറെ ഒഴിവുസമയങ്ങളിൽ വെറുതെ ഇരിക്കും ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ ടിവി കാണും അല്ലെങ്കിൽ പിന്നെ ഫോണിൽ ഗെയിം കളിക്കും ഫ്രീ ഫയർ കളിക്കും പബ്ജി കളിക്കും സബ്വേ സർഫ് കളിക്കും അങ്ങനെ കുറെ ഗെയിമുകൾ ഫോണിൽ ഉണ്ട് അപ്പോൾ ഞാൻ ഗെയിം ഫോണിലെ ഗെയിം കളിക്കും പിന്നെ കുറച്ചുനേരം കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കും സിനിമ കാണും മെയിൻ ആയിട്ട് നമ്മൾ സിനിമ കാണും ഇപ്പോൾ പുതിയ സിനിമകൾ ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് മേലാറ്റൂരിൽ ഒക്കെ പോയിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണും ഇതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവൽ ആണ് നമ്മൾ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ സിനിമ കാണും പിന്നെ എന്ന് പറഞ്ഞത് നമ്മുടെ കളിക്കാൻ പോകും വൈകുന്നേരങ്ങളിൽ ഒരു നാലുമണി ആകുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകും പിന്നെ എന്ന് പറയുന്നത് ഫാമിലിക്കൊപ്പം നമ്മൾ ഇരുന്ന് ടിവി കാണും അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒക്കെ ഒരു അഞ്ച് ആറ് ഒരു ആറര ഏഴുമണിക്ക് വൈകുന്നേരം എല്ലാവരും വീട്ടിൽ എത്തും അച്ഛനും അമ്മയും ഒക്കെ എത്തിയ സമയത്ത് നമ്മൾ അവരെ ഒപ്പം ഇരുന്ന് പണികളൊക്കെ കഴിഞ്ഞ് ടിവി തന്നെ അവരോടൊപ്പം സംസാരിച്ചിരുന്നു ടിവി കാണും അതൊരു രസമുള്ള കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെക്കേഷൻ ടൈമിൽ ഒക്കെ നമ്മൾ ടൂർ പോകും അങ്ങനെയൊക്കെ ചെയ്യും ഫ്രെണ്ട്സ് ഒത്ത് നമ്മൾ ട്രിപ്പ് പോകും അല്ലെങ്കിൽ ഫാമിലിയായി നമ്മൾ ടൂർ പോകും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്